ആ പറഞ്ഞോ പറഞ്ഞോ വിളിച്ചത് ആ ആ ആ ഗാർഡന് വൃത്തിയാക്കാനാണോ ഗാർഡൻ പുതിയത് ഫിറ്റ് ചെയ്യാനാണോ അതുശരി ആ അപ്പോൾ അതിൻ്റെ എന്ത് മാത്രം ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാമോ അതോ പറയണോ ഞങ്ങൾ അതിനുമാത്രം ഏരിയ ഉണ്ടോ സൈസ് എന്ത് മാത്രം ഉണ്ട് അത് അതിന്റെ ഫീറ്റ് പറഞ്ഞാൽ മതി ഫീറ്റ് ഏ ഫോർ ഇൻടു ഫോർ ഇൻടു ഫോർ ആണോ ഫോർ ഇൻടു ഫൈവ് ആണോ ഫോറ് ഇൻ്ടു ഫൈവ് മ് ഫോറ് ഇൻ്ടു ഫൈവ് ആണെങ്കിൽ നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്ന നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് മ് ഹ് ഇരുപത് സ്റ്റെപ്പ് ഉണ്ട് ഇരുപത് സ്റ്റെപ്പില് ഈ ഗാർഡന് ഗാർഡന് ഉണ്ട് ആ ഹാ അപ്പോഴത് പുതിയതായിട്ട് സെറ്റ് ചെയ്യാനണോ അതോ സെറ്റ് ചെയ്ത് റെഡിയാക്കിയത് ആണ് ക്ലീൻ ചെയ്യാനാണോ അല്ല അത് സ്റ്റെപ്പിൻ്റെ അവിടെ പുതിയ സെറ്റ് ചെയ്യാനാണോ അതോ പുതിയ പഴയത് ഒന്ന് റെഡിയാക്കി എടുക്കാനോ പഴയ പുതിയത് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാനണോ ഇപ്പം മൊത്തം പഴയത് മുഴുവൻ മാറുക മുഴുവൻ മാറിയിട്ട് പുതിയത് വയ്ക്കുക പഴയത് മൊത്തം മാറിയിട്ട് പുതിയത് ചെയ്യുക പുതിയത് ചെയ്യുക അപ്പം പഴയതിന് പഴയതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഈ മാറ്റി ആ വിരിക്കുന്നത് നമ്മളീ ഈ ചേട്ടന് ചേട്ടൻ പറഞ്ഞ നമ്മളിപ്പം ഇതല്ല നമ്മൾ മാറ്റിനെ കുറിച്ചല്ലോ ഈ നമുക്ക് ഗാർഡനാ പറയുന്നത് ഗാർഡൻ ഗാർഡൻ പറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ പൂവ് ചെടി പിടിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ചുള്ളൂ അല്ലാതെ അത് പ്ലാസ്റ്റിക്കോ എന്താ ഓർഗാനിക്കോ ആകാം പക്ഷെ നമുക്ക് അതിൻ്റത് മാറ്റിന്റെ നമ്മൾ മാറ്റിന്റെ വർക്കില്ല നമുക്ക് ഗാർഡനിങ്ങിന് പരിപാടിയുള്ളൂ പൂവേ ചെടി പിടിപ്പിക്കുക സ്റ്റെയർകേസില് ആ ആ അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇതിൻ്റെ എന്ത് മാത്രം സൈസ് ഉണ്ട് സ്ക്വയർ ഫീറ്റ് പറയുവാണെങ്കിൽ ഫോർ ഇൻടു ഫോറ് ആണോ മ് മ് ഇപ്പം നമ്മൾ അതിന് ഇപ്പം ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണെങ്കിൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണെങ്കിൽ ഇപ്പം ഈ നൂറിന് മേളിലാണ് ഞങ്ങളുടെ എഴുന്നൂ നൂറിന് മേളിലാണെങ്കിൽ ഞങ്ങൾ ഒരു സ്ക്വയർ ഫീറ്റിന് നൂറിന് മേളിലാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഞങ്ങൾ നൂറ് രൂപയാണ് വേടിക്കുന്നത് ഇപ്പം ഈ ഇരുന്നൂറ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ ഇച്ചിരി കുറച്ച് തരാം ഒരു എഴുപത് രൂപയ്ക്ക് ചെയ്ത് തരാം ഒരു സ്ക്വയർ ഫീറ്റിന് മ് അതിന്റെ അല്ല റേറ്റ് ഇപ്പം പറഞ്ഞല്ലോ ചേട്ടൻ പറഞ്ഞല്ലോ അതിന്റകത്ത് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് സൈസ് പറഞ്ഞല്ലോ ഇല്ല അളന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടങ്ങോട്ട് ചെയ്താൽ മതി നമ്മക്ക് അതിൻ്റെ റേറ്റ് അല്ലേ സെറ്റ് ചെയ്യുന്നത് റേറ്റ് നമ്മൾ നോക്കി ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും മതി നമുക്കതിൻ്റെ റേറ്റ് ഇത് പറഞ്ഞ് ഓക്കെ ആണെങ്കിൽ നമുക്ക് നാളെ വന്ന് അതിൻ്റെ ആൾക്കാർ വന്ന് ചെയ്യും ഓക്കെ ഓക്കെ